ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുകുപരത്തുന്ന രോഗങ്ങള് നമ്മള് പലരീതിയില് നമുക്ക് പ്രതി പ്രതിരോധിക്കാന് സാധിക്കും കൂടുതലും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് നിന്നാണ് കൂടുതലും ഡെങ്കിപ്പനിയും അതായത് കൊതുകുപരത്തുന്ന രേ രോഗങ്ങളൊക്കെ കൂടുതലും പടരുന്നത് ഇപ്പം നമുക്ക് ഇപ്പം റബ്ബറിന്റെ തോട്ടത്തില് പോലും അറിയാം റബ്ബറിന്റെ തോട്ടത്തിൽ റബ്ബർ തോട്ടത്തിലെ ചിരട്ടകളിലൊക്കെ മിക്കതും എല്ലാ ദിവസം അതിലെ ചിരട്ടയിൽ വെള്ളം കെട്ടിക്കിടക്കേണ് ചെയ്യാറുള്ളത് അപ്പോൾ അതുവഴി ഒത്തിരി രീതിലുള്ള പലരീതിയിലുള്ള എന്താ കൊതുകുകള് ഉണ്ടാകുകയും അതുവഴി ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങളും മനുഷ്യർക്ക് പിടിപെടാറും സാദ്ധ്യതയുമുണ്ട് ഇപ്പം അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ റബ്ബർ തോട്ടത്തിൽ തന്നെ റബ്ബർ വെട്ടുന്ന ഓരോ ആൾക്കാർ വേണം അവർ റബ്ബർ വെട്ടിക്കഴിഞ്ഞിട്ട് ചിരട്ട കമത്തിൽ വെക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ സാധിക്കുക ഇതുവഴി തന്നെ നമുക്ക് റബര് തോട്ടത്തിൽ നിന്ന് പടരുന്ന രോഗങ്ങളെ അതായതു ഡെങ്കിപ്പനി മലേറിയ അങ്ങിനത്തെ തുടങ്ങിയ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും പറ്റും നല്ല രീതിയിൽ പിന്നെ ഉള്ളതെന്നു വെച്ചാൽ ഈ തോട്ടിലൊക്കെ കെട്ടി കിടക്കുന്ന തോടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലായാലും ഒത്തിരി രീതിയിൽ നമുക്ക് നോക്കിയാൽ കെട്ടികിടക്കുന്ന തോടൊക്കെ നമുക്ക് അനേകം രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് കെട്ടിക്കിടന്ന രോഗ കെട്ടികിടക്കുന്ന എന്തു കൊണ്ടെന്നു വെച്ചാൽ പ്ലാസ്റ്റിക്കും അങ്ങിനത്തുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കൂടുതൽ തോടൊക്കെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കൂടുതല് തോടുകളൊക്കെ കെട്ടിക്കിടക്കുന്നത് ഇതൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ മാറ്റി നല്ല രീതിയിൽ ആ തോട് ഒഴുകിപ്പോകുന്ന രീതിയിൽ ആക്കിയാൽ മാത്രമേ നമ്മുടെ ഈയൊരു നഗര ആ പ്രദേശങ്ങളിലുള്ള ആ സ്ഥലത്ത് പടരുന്ന ഇതുപോലത്തെ രോഗങ്ങളെ നമുക്ക് മാറ്റാന് സാധിക്കത്തുള്ളൂ അതിനു നമ്മുടെ ഇവിടുത്തെ ഗവണ്മെന്റും കാര്യങ്ങളും ഒക്കെ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ ഗവണ്മെന്റ് മാത്രമല്ല പ്ലാസ്റ്റിക് പോലെയുള്ള കാര്യങ്ങളറിയുന്ന നമ്മളോരോരുത്തരും നമ്മളോരോരുത്തരും മനുഷ്യർ തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ തോട്ടിലും ഇപ്പോൾ ആറ്റിലായാലും എവിടെയായാലും പ്ലാസ്റ്റിക്കും കാര്യങ്ങളുമൊക്കെ ഇടുന്നത് നമ്മൾ മനുഷ്യരു തന്നെയാണ് പിന്നെ നമ്മളൊക്കെ വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കത്തുള്ളൂ നമ്മളിപ്പോൾ ഓരോ പ്ലാസ്റ്റിക് വെള്ള ഒരു വെള്ളമായിക്കോട്ടെ അല്ലെങ്കില് അങ്ങിനത്തെ എന്തു കാര്യങ്ങളും ഇപ്പം കൂടുതലും പ്ലാസ്റ്റിക്കിലാണ് കിട്ടാറുള്ള ഈ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വേസ്റ്റ് ബിന്നിൽ പോലും നമുക്ക് കളയാൻ നമുക്കു പറ്റത്തില്ല നമ്മൾ കാണുന്ന തോട്ടിലും ആറ്റിലും ഇതുപോലത്തെ ഓരോ കുളങ്ങളിലുമൊക്കെ നമ്മൾ കൊണ്ടു പോയി എറിയാറാണ് പതിവ് ഇത് അവിടെ കിടന്നു അതിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ഇതുപോലെയുള്ള കൊതുകുകളെ പെറ്റു പെരുകി അവിടെ നിന്നും ഇതുപോലത്തെ ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുകു പരത്തുന്ന അനേകം രോഗങ്ങളെ കാരണമാകുന്നുണ്ട് ഇതിനെയൊക്കെ നമുക്ക് മനുഷ്യരെ കൊണ്ടു നല്ല രീതിയിൽ തടയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ഒരിക്കലും എന്തുവായിരുന്നോ ഈ വെള്ളം തടഞ്ഞു നിർത്തുന്ന രീതിയിൽ പ്ലാസ്റ്റിക് ആയാലും പ്ലാസ്റ്റിക് കവർ ആയിക്കോട്ടെ കുപ്പി ആയിക്കോട്ടെ എന്തുവായിക്കോട്ടെ ഇതിലൊ ഇതൊന്നും ഒരിക്കലും അവിടെയൊന്നും ഇടാതിരിക്കാമെന്നു മാത്രമേ നമ്മളെകൊണ്ടു ചെയ്യാൻ സാധിക്കുകയുള്ളു ഇതിലൂടെ തന്നെ ഇതുപോലെ ഇതുപോലെ തന്നെ രോഗങ്ങളൊക്കെ നമുക്ക് മാക്സിമം നമ്മളെകൊണ്ട് കുറക്കാൻ സാധിക്കും മനുഷ്യരിലേക്ക് പടരാതെ നമുക്ക് നിർത്താനും സാധിക്കുകയും ചെയ്യും പിന്നെ റബറിന് തോട്ടങ്ങളിലും കുളങ്ങളിലും ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ അനേകം രീതിയിലുള്ള ഡെങ്കിപ്പനിയായിക്കോട്ടെ എന്തു വേണേ നമുക്ക് മനുഷ്യരിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പം എന്റൊരു അടുത്തുള്ള വീട്ടിലെ കുഞ്ഞിനാണ് ഇതുപോലത്തെ രോഗങ്ങൾ പിടിപ്പെട്ടു ഡെങ്കിപ്പനി പിടിച്ചിട്ട് ആ കൊച്ചിനെ എന്തുവാ എക്സാമിന്റെ പരീക്ഷയുടെ സമയത്താണ് ഇതുപോലത്തെ രോഗങ്ങളൊക്കെ പിടിപെട്ടത് ആ കുഞ്ഞിന് എക്സാം പോലും എഴുതാൻ പറ്റാത്ത ആ രീതിയിലുള്ള അവസ്ഥയായിപ്പോയി ഇതുപോലെയുള്ള ഓരോ മനുഷ്യർക്കും പിടിപെട്ടതു ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങള് ഉണ്ടാകാറുണ്ട് നമ്മളിതിനെ തടഞ്ഞു നിര്ത്തി നമുക്ക് ഇതിനെ രീതിയിൽ നല്ല രീതിയിൽ പ്രതിരോധിക്കാനും മറ്റു മനുഷ്യരിലേക്ക് പടരാതിരിക്കാനും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും